ഇപ്പോൾ ഒരു കളിക്കാരൻ എന്ന നിലയിൽ ഞാൻ കൂടുതലായിട്ടും വാച്ച് ചെയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുത്തലയിട്ടും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ത്യൻ സൂപ്പർ ലീഗാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മുൻനിര ടീമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്തെ എനിക്കേറ്റവും ഇഷ്ട്ടം കേരളം ബ്ലാറ്റ ബ്ലാ ബ്ലാസ്റ്റേഴ്സ് ആണ് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളികൾ ഞാനെല്ലാ കളികളും കാണാൻ കാണുമായിരുന്നു അപ്പം അത് കാണുമ്പോൾ നമുക്കൊരു പ്രജോദനമാണ് നമുക്കും ഇങ്ങനെയൊക്കെ ആവാൻ പറ്റും എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഞാനുള്ളത് പിന്നെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓരോ ലീഗുകൾ അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തന്നെ ഇഷ്ടംപോലെ ടീമുകൾ കാര്യങ്ങളൊക്കെയുണ്ടായിരുന്നു അതിനകത്ത് നല്ല രീതിയിലുള്ള കളികൾ കാഴ്ച വെക്കാൻ പറ്റിയത് കുറെ ടീമുകളുണ്ട് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ കഴിഞ്ഞുപോയ ഇതിൽ മുംബൈ ഇന്ത്യൻസ് ആണ് നല്ലോണം കളിച്ച് അവരാണ് വിന്നർ ആയത് അപ്പം അവർക്കൊക്കെ നല്ല രീതിയിൽ കളിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് പിന്നെ ഇൻ ഇന്ത്യയിലെ മുൻ നിര ടീമുകളിൽ ഇന്ത്യൻ ഇന്ത്യയിൽ എന്താ പറയാ ടീമിൽ നായകനെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ സുനിൽ ഛേത്രി ആണ് അപ്പോൾ സുനിൽ ഛേത്രിയാണ് മുന്നിൽ നിന്ന് നയിക്കുന്നത് അതിനകത്ത് കുറെ ആൾക്കാർ ഈ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്നാണ് തെരഞ്ഞെടുത്തത് അങ്ങനെ കുറെ ക്ലബ്ബുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു